ഇപ്പം നമ്മൾ കോഴിക്കോടെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭാഷയാണ് ഭാഷയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ നം നമ്മുടെ ഭാഷ എന്താ പറയുക അതുപോലത്തെ ഒരു രീതിയിലാണ് പ്രത്യേക ശൈലിയാണ് എന്നാലും ഭയങ്കരിഷ്ടമാണ് പിന്നെയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മിഠായി തെരുവായിക്കോട്ടെ അതു പോലെത്തന്നെ വേറെന്താ പറയുക നമ്മുടെ കായലായിക്കോട്ടെ എല്ലാം എന്താ പറയുക കായലും കടലും എല്ലാം കൂടി ചേർന്നൊരു നാടാണ് അതു പോലെത്തന്നെ എന്താ പറയുക എല്ലാവരും എന്താ പറയുക കോഴിക്കോടെന്നു പറയുമ്പോൾ ഒരു എന്താ ഒരു പ്രത്യേക ഇഷ്ടമുണ്ട് അതോണം തന്നെ ജനിച്ച നാടായോണ്ട് എന്താ പറയുക ഒരുപാട് ഒരു എന്താ പറയുക വേറെ നാട്ടിൽപ്പോയി കോഴിക്കോടുകാരനാണെന്നു പറയുമ്പോൾ തന്നെ ഒരു കൊ വെൽ കോഴിക്കോടുകാരിയാണെന്നു പറയുമ്പോൾത്തന്നെ ഒരു ഒരുപാടു കാര്യങ്ങളൊക്കെ ചോദിയ്ക്കാറുണ്ട് മിഠായി തെരുവിലൊക്കെ ഒരുപാടു പേർ വരാറുണ്ട് എന്താ പറയുക ഇപ്പോൾ നമുക്ക് കൊച്ചിയിലൊക്കെ പോകുന്ന ഒരു വൈബാണ് നമുക്ക് നമ്മുടെ നാട്ടിലേയ്ക്കു വരുമ്പോൾ പിന്നെ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അതുപോലെത്തന്നെ ഇപ്പം നമ്മുടെ എന്താ പറയുക എയർപോർട്ട് ആയിക്കോട്ടെ എയർപോർട്ടിലേക്കായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് അതുകൊണ്ടുതന്നെ നമ്മൾ നമ്മുടെ നാടിനെക്കുറിച്ചു പറയുമ്പോൾ നഗരത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരു നൊസ്റ്റാൾജിക്ക് ഫീൽ അല്ലെങ്കിൽ ഒരു പ്രൗഡുണ്ട്